എൻ്റെ രണ്ടാമത്തെ പ്രൊഡക്റ്റെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കെറ്റിലാണ് കെറ്റിലിൻ്റെ ഉപയോഗം നല്ല രീതിയില് നമ്മള് ഉപയോഗിക്കാറുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് രാവിലെ എണീറ്റിട്ട് കാപ്പി വെയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ചില സമയങ്ങളില് നമുക്ക് ഗ്യാസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു കാപ്പിയോ ചൂടുവെള്ളമോ ഉണ്ടാക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മള് വിറകൊക്കെ എടുക്കാൻ ഓടുക പിന്നെ തീപ്പെട്ടി ഉണ്ടാകില്ല ചിലപ്പം അല്ലെങ്കിൽ ഗ്യാസ് ഉണ്ടാവില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും അപ്പോൾ അത് ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാന് കെറ്റില് വാങ്ങിയത് നല്ലൊരു പ്രൊഡക്റ്റാണ് നമുക്ക് വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അതില് നമുക്ക് നല്ല രീതിയിൽ വെള്ളം ചൂടാക്കാനും ഇപ്പം ഇപ്പോൾ ഗ്യാസില്ലാത്ത വീട്ടിലാണെങ്കിൽ തന്നെ നമുക്ക് ഇപ്പോൾ ക ഒരു കരണ്ട് ചാർജ് ഒരു കരണ്ട് കരണ്ട് കണക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കില് നമുക്കിപ്പോൾ സ്പോട്ടിൽ തന്നെ നമ്മള് കാപ്പി പൊടിയോ ചായ പൊടിയോ എന്താന്ന് വെച്ചാൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചായയാണെങ്കിലും കാപ്പിയാണെങ്കിലും എടുക്കാനും പറ്റും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നടക്കും അപ്പം അതൊരു നല്ലൊരു പ്രോഡക്റ്റാണ് പിന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഇത് മെയിനായിട്ട് കരണ്ട് ചാർജിലാണ് ഓടുന്നത് അപ്പോൾ കരണ്ട് ചാർജ് നല്ല രീതിയിലുള്ള കൂടുതല് കാര്യങ്ങളൊക്കെ ഉണ്ടാകും